ഞാൻ കുറച്ച് ബെഡ്ഷീറ്റുകൾ പിന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു അത് വന്ന് നല്ല ബെഡ്ഷീറ്റാന്നും പറഞ്ഞ് കൊണ്ടുവന്ന് നോക്കുമ്പോൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് ഒരു ഒരലക്കൽ കഴിഞ്ഞ് അന്നേരം വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മള് അലക്കാനിട്ട് അലക്കി നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പിന്നി പിന്നി പോവാണ് അതുകൊണ്ട് ഓൺലൈനിൽ എല്ലാ ഒന്നും നമ്മള് വിശ്വസിച്ച് ഒരു സാധനം പിന്നെ വാങ്ങാൻ പറ്റില്ല അതിന് നമ്മൾ ഇത്ര ബെഡ്ഷീറ്റ് എട്ട് ബെഡ്ഷീറ്റ് എട്ടു പില്ലോ കവർ പതിനാറ് പില്ലോ കവറെന്നെല്ലാം പറഞ്ഞു വരുന്നത് വെറും തട്ടിപ്പാണ് അതെ അതൊന്നും വാങ്ങരുത് അതൊന്നും വലിയ ഗുണമുള്ള സംഭവം ഒന്നുമല്ല അത് അത് എല്ലാം കീറി ഒന്നിനും പറ്റാതെയായി അതിപ്പോൾ ഉപയോഗിക്കുന്നുമില്ല അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും വാങ്ങാതിരിക്കുക